ആ സിനിമ മേഖലയിൽ മീൻസ് സിനിമ മേഖലയിൽ പിന്നെ ഓരോ ഓരോ എന്തോ ഒരു ഓരോരോ നല്ല വിഷയം ഉണ്ടാവുമ്പം ഉണ്ടാവുന്നു ഓരോ ഓരോ സിനിമ മേഖലയിൽ അതുപോലെ തന്നെ കുറേ വാർത്തകൾ വരുന്നുണ്ടല്ലോ ആ നടൻ ഇങ്ങനെ ചെയ്തു ആ നടൻ നടിയെ ഇങ്ങനെ ചെയ്തു ആ നടി ഇങ്ങനെ ചെയ്തായിരുന്നു സ്വാഭാവികം പത്രക്കാർക്ക് എന്ത് കിട്ടുന്നോ അതെല്ലാം അവർ പത്രത്തിൽ എഴുതി ഇടും ചില പത്രക്കാർ ഉണ്ടാക്കി അവര് കുറച്ചു ഇല്ലാത്തതും ഉണ്ടെങ്കിലും ചേർത്തു കൂട്ടി എന്തെങ്കിലും എഴുതും അപ്പോൾ അതുപോ ലെ തന്നെ പിന്നെ ഓരോ ഓരോ നടൻ നടിമാർക്കും സിനിമാ മേഖലയിൽ കലാ കുറ്റങ്ങൾ പറയാറുണ്ട് അപ്പോൾ അവരെ പറ്റി എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല പക്ഷെ എന്താണ് അവരെ പറ്റി പറയുന്നത് ഉണ്ട് അവർ നടന്നതല്ലേ പത്രക്കാരും ന്യൂസ് ഇത് എഴുതുന്നത് അപ്പം നമുക്ക് അപ്പം സിനിമ മേഖലയിൽ തിന്മ ഉണ്ട് നന്മയും ഉണ്ട് അതായത് ഒരാൾക്ക് ജീവിതം തരുന്നു തരുന്നുമുണ്ട് സിനിമ മേഖല അല്ലെങ്കിൽ സിനിമ മേഖല ഒരാൾക്ക് ജീവിതം പുതിയ ഒരു പുതിയ ഒരു ജീവിതം സ്റ്റാർട്ട് ആക്കി തരുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരാൾക്കും അത് ഒരുമാതിരി എന്താണ് ഫോസസ് ആകുമോ എന്തോ എന്നറിയില്ല ഐ മീൻസ് എന്താണ് ചെയ്യേണ്ടത് സിനിമ ചിലവർക്ക് സിനിമയാണെങ്കിൽ ജീവനാണ് അപ്പം അതുപോല തന്നെ നമുക്കും കണ്ടു കാണാമല്ലോ അപ്പം അതുപോലെ തന്നെ ഓരോരോ സിനിമാ മേഖലയിൽ അങ്ങനെ ആയിരുന്നു കുറ്റം ഉണ്ട് തിന്മ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണ് സിനിമാ മേഖലയിൽ നന്മ ഉണ്ട് തിന്മ ഉണ്ട് ആർക്ക് എന്നാ കിട്ടുന്നോ അത് കിട്ടിയാൽ നമ്മൾ എഴുതുന്നതും എഴുതി കൊടുക്കുന്നതും പിന്നെ അതുപോലെ തന്നെ അല്ലേ എല്ലാം വരുന്നത് ഇപ്പോൾ സിനിമാ മേഖലയിൽ നടൻ നടിമാർക്കോ ഒരു പുതിയ ജീവിതമുണ്ട് അതേപോലെ കുറേ തിന്മയും കിട്ടിയിട്ടുണ്ട് നന്മയും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തിന്മയും കിട്ടും നന്മയും കിട്ടുകയാണ് ഈ സിനിമ മേഖലയിൽ